കേരളത്തിൽ അധികവും സ്വകാര്യ ആശുപത്രികളാണ് ഗവൺമെൻറ്റ് ആശുപത്രികളെക്കാളും കൂടുതലുള്ളത് ഗുണനിലവാരം വെച്ചും ചിലവു വെച്ചും എല്ലാം ഗവൺമെൻറ്റ് ആശുപത്രിയേക്കാളിലും മുന്നിലാണ് സ്വകാര്യ ആശുപത്രികൾ ഉദാഹരണത്തിന് കിംസ് ലേയ്ക് ഷോർ അങ്ങനെയുള്ള ആശുപത്രികൾ ലേയ്ക് ഷോർ ആശുപത്രി ക്യാൻസർ ചികിത്സക്ക് പേരു കേട്ടതാണ് രോഗികൾക്ക് നല്ല ചികിത്സയാണ് നൽകുന്നത് രോഗങ്ങൾ ശരിയായി കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നു ഗവൺമെൻറ്റ് ആശുപത്രികളിലെ പോലെ അല്ല പ്രൈവറ്റ് ആശുപത്രി അവിടെ ഗവൺമെൻറ്റ് ആശുപത്രികളിലാണെങ്കിൽ രോഗിക്ക് കിടക്കേണ്ടി വന്നാൽ അവരുടെ സാമ്പത്തികം അനുസരിച്ചായിരിക്കും അവർക്ക് റൂം വാർഡോ അനുവദിക്കുന്നത് എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ അങ്ങനെയല്ല പൈസ കൊടുക്കുകയാണങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് റൂമോ അല്ലെങ്കിൽ വാർഡോ തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നെ ഗവൺമെൻറ്റ് ആശുപത്തി ആശുപത്രികളിലെ പോലെ ബെഡ് കുറവൊന്നുമല്ല അത്യാവശ്യം നല്ല ബെഡുകളും വെൽ എക്വിപ്പ്ഡ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സും ആയിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഉള്ളത് ഗവൺമെൻറ്റിനേക്കാളും നല്ല രീതിയിലായിരിക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ രോഗികളെ ട്രീറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ചിലവു കൂടും എന്നു മാത്രമാണുള്ളത് ഗുണനിലവാരം മെച്ചം പ്രൈവറ്റ് ആശുപത്രി കു മുന്നിൽ നിൽക്കുകയാണ് പ്രൈവറ്റ് ആശുപത്രികളിൽ മെഡിക്കൽ അവ് അവരുടെ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ മുരുന്ന് കിട്ടുക കിട്ടാറുണ്ട് പുറത്ത് ചെന്ന് വാങ്ങിക്കേണ്ട ആവശ്യം ഒന്നും വരാറില്ല പുറത്ത് കിട്ടിയില്ലെങ്കിലും നമ്മൾക്ക് പ്രൈവറ്റ് ആശുപത്രികളിൽ വന്നു വാങ്ങാം നമ്മൾക്ക് നമ്മളെ പരിചരിക്കാൻ വേണ്ടി നെഴ്സ്സുമാർ എപ്പോഴും കാണും സ്വകാര്യ ആശുപത്രികളിൽ ഗവൺമെൻറ്റ് ആശുപത്രികളിൽ ആണെങ്കിൽ അങ്ങനെ നമ്മളെ പരിചരിക്കാൻ വേണ്ടി മാത്രമായി നെഴ്സ്സുമാരൊന്നും കാണത്തില്ല അവർ നമ്മളെ ശ്രദ്ധിക്കത്തു പോലുമില്ല എന്നാൽ പ്രൈവറ്റ് ആശുപത്രികളിൽ നമ്മൾ പൈസ അടക്കുന്നതു കൊണ്ടു തന്നെ നമുക്ക് നല്ല ചികിത്സയും കിട്ടും നമ്മളെ പരിചരിക്കാൻ വേണ്ടി നെഴ്സുമ്മാരും ഡോക്ടറും കാണും അതുകൊണ്ടു തന്നെ എന്തുകൊണ്ടും മെച്ചപ്പെട്ടത് സ്വകാര്യ ആശുപത്രികളാണ് കേരളത്തിൽ കൂടുതൽ സ്വകാര്യ ആശുപത്രികളാണുള്ളത് അതിപ്പോൾ കണ്ണിനായാലും എന്തിനായാലും പ്രസവത്തിനായാലും സ്വകാര്യ ആശുപത്രികൾ ഓരോന്നിനും സ്വകാര്യ ആശുപത്രികളുണ്ട്